ആ എൻ്റെ കസ്റ്റഡിയില് ഇത്ര വസ്തുവുണ്ടല്ലോ നിങ്ങള്ക്ക് നിങ്ങള്ക്ക് വീട് വെയ്ക്കാനായിട്ട് ആ പിന്നെ നിങ്ങള്ക്ക് ഏത് ഏരിയയിലാണ് സ്ഥലം വേണ്ടത് ഇത് എത്ര സെന്റ് വേണം അമ്പത് സെൻറിന് മേലെയുണ്ട് മൂന്ന് നാല് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം അത് പിന്നെ വെള്ളം വറ്റാത്ത സ്ഥലമാണ് പിന്നെ പഞ്ചായത്ത് വഴി ചേർന്നതാണ് അതുപോലെ തന്നെ പള്ളിയുണ്ട് ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ളതാണ് അത് പിന്നെ രണ്ട് സൈഡിലും വഴിയുള്ളതാണ് സാമാന്യം വെള്ളം കയറാത്ത വസ്തുവാണ് സാമാന്യമല്ല ഒരു നല്ല വെള്ളം വന്നാലൊന്നും കയറാത്തതാണ് നാലുവശവും അതെ തെങ്ങും രണ്ടുമൂന്ന് പ്ലാവും മാവുമൊക്കെക്കൂടിയാണ് നിങ്ങള് എന്തു വിലയ്ക്കെടുക്കാമെന്ന് വന്ന് കാര്യം പറയുക ഞങ്ങള് ചോദിക്കുന്നത് ഞങ്ങള് നാല് ലക്ഷം രൂപയാണ് ഞങ്ങള് ചോദിക്കുന്നത് ആ നിങ്ങള് അത് വന്ന് കണ്ട് നിങ്ങള് അത് വന്നുകണ്ടിട്ട് നിങ്ങളെന്താണ് പറയുന്നതെന്ന് അറിയുക ആ ബസ്സ് ഓടുന്ന റൂട്ടാണ് കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടാണ് വഴി നല്ലതാണ് വഴിയൊക്കെ നല്ല വഴിയാണ് വെള്ളം നല്ലതാണ് ഒരിക്കലും വറ്റാത്ത വെള്ളമാണ് ആ കിണറ് കെട്ടി കിണറിന്റെ പണിയെല്ലാം തീർത്തിട്ടിരിക്കുന്നതാണ് നാലുവശവും മതില് കെട്ടിയിട്ടുള്ളതാണ് പിന്നെ കട വെയ്ക്കുവാനോ വീട് വെയ്ക്കുവാനോ ഉള്ള സൗകര്യത്തിലൊക്കെയുള്ളതാണ് ആ പിന്നെ സ്ക്വയറില് കിടക്കുന്ന സ്ഥലമാണ് ഹ്മ് ഹ് ഹ് ലാസ്റ്റ് നമുക്ക് ലാസ്റ്റ് നമുക്ക് നാലിലാണ് നമ്മള് പിടിച്ചിരിക്കുന്നത് ഒരു പത്ത് പതിനായിരം രൂപ കുറച്ച് തരാം തരുമ്പോള് റെഡി കാശ് ആണോ ആ ആ ആ ആ ഇനി ഇടയ്ക്കൊരു ബ്രോക്കറുണ്ട് അവന് ഇത്തിരി പൈസ കൊടുക്കേണ്ടി വരും ഞങ്ങള് അത് എനിക്ക് എനിക്കെൻ്റെ കമ്മിഷന് അത് തരണം വസ്തുവിന്റെ ഉടമസ്ഥന് പിന്നെ അത് ഈ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കുക അതായത് കമ്മിഷൻ നിങ്ങള് എനിക്കെന്തു തരും ആ അതുശരി ആ ആ ആ ആ അത് ആധാരം എഴുതുമ്പോഴേ തരികയുള്ളോ അതോ അതിനുമുമ്പ് തരുമോ ഇല്ലേ എന്നത്തേക്ക് നിങ്ങള് കാണാന് വരും വസ്തു കാണാൻ വരും ഇത് നമ്മുടെ തിരുത്തിക്കും വാഴപ്പള്ളിക്കും ഇടയ്ക്കാണെന്ന് വെച്ചുകൊള്ളൂ നിങ്ങള് പിന്നെ നിങ്ങള് ആ ജംഗ്ഷനില് തിരുത്തി ജംഗ്ഷനില് വന്ന് വിളിച്ചാല് മതി ഞാനവിടെ വരാം ആ ആ ആ നമുക്ക് നമ്മുടെ കസ്റ്റഡിയില് രണ്ടുമൂന്ന് സ്ഥലമുണ്ട് അതില് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണാം ഇതിൻ്റെ ഇത് അല്ലെങ്കില് നമുക്ക് വേറെ നമുക്ക് നോക്കാം ഓക്കെ ആ ആ ആ വീട് ആ വീട് കൂട്ടി വേണമോ സ്ഥലം പണിയാനുള്ള പ്ലാനല്ലേ അത് ശരി ആ ആ ആ എന്നാല് ഞാന് അപ്പം തിരുത്തി വരിക തിരുത്തി ജങ്ഷനില് വന്നിട്ട് വിളിച്ചാല് മതി ഞാനവിടെ വരാം ആ ഉണ്ടുണ്ടല്ലോ വേറെ നമ്പര് വേണ്ടല്ലോ ഈ നമ്പറില് വിളിച്ചാല് മതി ഇതാണ് ഓക്കെ ഓക്കെ എന്നാല് വെച്ചുകൊള്ളൂ ഓക്കെ ഓക്കെ ഓക്കെ